ഹലോ ആ സൂപ്പർമാർക്കറ്റ് ആണോ സൂപ്പർമാർക്കറ്റ് ഏ ആ സൂപ്പർമാർക്കറ്റ് നമ്മുടെ പുതിയ ഇതൊന്ന് സാധനങ്ങളൊക്കെ വല്ലതും വന്നിട്ടുണ്ടോ ഗ്രോസറി ഐറ്റംസ് അത് ഏത് കമ്പനിയുടെ ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇറയുടെ ഉണ്ടോ ഇറയുടെ ഇറാ കമ്പനി ഇറാ കമ്പനി ആ ആ ശരി ആ അത് അതിന്റെ ഡിന്നർ സെറ്റ് ഉണ്ടോ ഡിന്നർ സെറ്റ്

ആ അത് ആ എ എത്ര എണ്ണം അത് എത്ര എണ്ണം ഉള്ളതുണ്ട് ആറ് ഡിഷ് ഉള്ളതുണ്ടോ ഓ ഓ അതുശരി അപ്പം എന്തിര ആ ആ അതിനെന്ത് വിലയുണ്ട് അറുനൂറ്റമ്പത് രൂപയോ അത് അതല്ല സാധാരണ അങ്ങനെയല്ല അവരുടെ മറ്റേ വില കൂടുതൽ ഉള്ള സാധനം ആണല്ലോ അതിലെ ഇത് അറുനൂറ്റമ്പത് എം ആർ പി റേറ്റ് ആണോ ഓ അതുശരി ഇത് ഇത് എം ആർ പി റേറ്റ് ആണോ അറുനൂറ്റമ്പത്

ഓ അതുശരി അത് പിന്നെ ഓർഡർ പ്ലേസ് ചെയ്തതുകൊണ്ട് വീട്ടിലെത്തിക്കാൻ പറ്റുമോ എനിക്ക് രണ്ട് മൂന്ന് എണ്ണം വേണമായിരുന്നു സെറ്റ് ആ ഓ ആ ആ അതുശരി ആ ആ അതുശരി അതിന് ഓൺലൈൻ പേയ്മെൻറ് ഉണ്ടോ അ വ വന്നിട്ട് അത് ആ അത് വന്നിട്ട് ക്യാഷ് കൊടുത്താൽ മതിയോ

ഓ ഓ ഓ ഓ ഓ ചിലയിടത്ത് ചിലയിടത്ത് ഈ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ഡി ഡിഡക്ഷൻ വരും ക്രെഡിറ്റ് കാർഡിൽ അല്ല അതല്ല ഞാൻ മറ്റേ ഈ ഇവരുടെയൊക്കെ ഈ ഹാന്റക്സ് കമ്പനിയിൽ ഒക്കെ പോയിക്കഴിഞ്ഞുകൊണ്ട് ക്യാഷ് കൊടുക്കുവാണെങ്കിൽ മുഴുവനും പൈസ കൊടുക്കണം ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഓ അത് ആ അതുശരി വേറെ ഏതോ ഷോപ്പുകാരോട് തരാമെന്നൊരു ഇടപ്പള്ളിയിൽ ഒരെണ്ണമുണ്ട് അതൊരു ചോദിച്ചപ്പോൾ ഉണ്ട് അവർ ക്രെഡിറ്റ് കാർഡിന് നമുക്കൊരു കമ്മീഷൻ ഉണ്ടെന്ന് പറയുന്നു ആ അത് കമ്മീഷൻ വന്ന് ഡീലർ ഡീ കമ്മീഷൻ ഡീലർ ആണ് കൊടുക്കേണ്ടത് അല്ല അതല്ല അവർ എന്നാ പറയുന്നത് ഡീലർ ആണ് തരേണ്ടത് നമുക്ക് ഞാൻ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ സ്ഥിരമാ ഞാൻ സ്ഥി ഞാൻ ഞാൻ സ്ഥിരമായിട്ട് അവിടുന്ന് വാങ്ങിക്കുന്ന ഇത് മനസ്സിലായോ ആരാണെന്ന് ഞാൻ അവിടെ പതിവായിട്ട് വാങ്ങിക്കുന്ന ഞാൻ പതിവായിട്ട് അവിടുന്ന് വാങ്ങിക്കുന്ന ഗോവിന്ദപ്പിള്ള ഗോ ഗോവിന്ദപ്പിള്ളയാണ് അവിടുന്ന് വാങ്ങിക്കുന്നത് പതിവായിട്ട് ആ എനിക്കാണെങ്കിൽ വേറെയും കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട് ഇതൊരു കല്യാണ പ്രസൻറേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇതിന്റെയെല്ലാം മൂന്ന് പീസ് കിട്ടുമോ എന്ന് ചോദിച്ചത് ഞാൻ ആ വരാൻ എനിക്ക് കാലിന് ഒരു അസുഖമായിട്ട് ഇരിക്കുവാണ് നിങ്ങൾക്ക് അവിടെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ കമ്പനിക്ക് ആ അല്ല അത് അപ്പം അപ്പം ഒരു അപ്പം ഒരാളിനെ ഞാൻ അയച്ചാൽ മതിയല്ലോ ആ ആ ആ ആ ആ അപ്പം ഞാൻ ഞാൻ അപ്പം ഞാൻ നിങ്ങളെ നിങ്ങളുടെ നമ്പറിൽ എനിക്ക് വാട്സാപ്പ് ഉണ്ട് ആ വാട്സപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്താൽ മതിയോ ആ ആ ഓ ഓ ആ അതുശരി നമ്മുടെ ഫ്ലാസ്ക് എല്ലാം ഉണ്ടല്ലോ നമ്മളെ പുതിയ ഓ ഓ ഓ ഓ ആ ആ ഫ്ലാസ്ക്കിന്റെ ഇതാവുമ്പോൾ അത് രണ്ടു മൂന്നാല് നോൾട്ട നോൾ നോ നോൾട്ടയുടെ ഇത് ഉണ്ടോ ഫ്ലാസ്ക്

ആ ശരിയാണ് ആ ആ ശരി കാരണം ഇവിടെ ഭയങ്കരം മഴ അതാണ് അവിടെ വരാനും നിവൃത്തിയില്ല ഞാൻ ഒരു അര മണിക്കൂർ കഴിഞ്ഞ് വരികയോ വിളിക്കുകയോ ചെയ്യാം ആ ഓക്കെ ഓ ആ ആ

ശരി ശരി അപ്പം ഓർഡർ പ്ലേസ് ചെയ്യാം ആ ആ ശരി ഓക്കെ